പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ചയെ ടൂറിസം വളരെ അധികം സഹായിച്ചിട്ടുണ്ടെന്ന് വേണം പറയുവാൻ കാരണം പ്രാദേശിക ബിസിനസ്സുകളെന്ന് പറയുന്നത് പൊതുവേ സാധാരണക്കാരുടെ ഇടയിൽ അത്ര പ്രചാരകരം അല്ലെങ്കിലും ടൂറിസ്റ്റുകളുടെ ഇടയിൽ വളരെ അധികം പ്രചാരം കൊള്ളുന്നതാണ് കാരണം വെളിയിൽ നിന്ന് ഒരാൾ ഒരു ടൂറിസം ടൂറിസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ അവർക്ക് കൂടുതലായും സാധനങ്ങൾ വാങ്ങുവാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കായും ഈ പ്രാദേശിക ബിസിനസ്സുകളെ അവർക്ക് ആശ്രയിക്കാവുന്നതാണ് അതുകൊണ്ടു തന്നെ പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ചയെ ടൂറിസം വളരെ അധികം സഹായിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വിദേശി അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവർക്ക് എല്ലായിപ്പോഴും എല്ലാ സാധനങ്ങളും കയ്യിൽ സൂക്ഷിക്കാൻ സാധിക്കണമെന്നില്ല ഉദാഹരണത്തിന് വെള്ളം അതുപോലെ തന്നെ ചെറിയ ചെറിയ പലഹാരങ്ങൾ മിഠായികൾ ഇതൊന്നും എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഉളള സാഹചര്യങ്ങളിൽ ഈ പ്രാദേശിക ബിസിനസ്സുകൾ അവരെ വളരെ അധികം സഹായിക്കും അതുപോലെ തന്നെ ടൂറിസ്റ്റ്കളുടെ വരവ് ഈ പ്രാദേശിക ബിസിനസ്സുകളുടെ ഉടമകളേയും വളരെ അധികം സഹായിക്കും